അ കേൾക്കുന്നുണ്ട് എനിക്ക് ഒരു വീട് വാടകയ്ക്ക് വേണമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് കൂടി കുറഞ്ഞത് ഒരു ഒരു കിലോമീറ്റർ അകലെ ഒരു വീട് റെൻറ്റിന് വേണമായിരുന്നു റെൻറ്റ് ഒരു സിക്സ് തൗസൻഡിൽ പിന്നെ ഒതുങ്ങുന്ന ഒരു വീട് ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും പിന്നെ ഒരു കിച്ചൻ ഒരു ബാത്രൂം ഒരാൾക്ക് താമസിക്കാൻ ഉള്ളത് മതി അ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ബാത്രൂമ് മറ്റ് പിന്നെ ഡൈനിങ് ഹാൾ കിച്ചന് അങ്ങനെ ഉള്ള അ സൗകര്യങ്ങൾ വേണം ഡിസ്റ്റൻസ് ഒരു വൺ പിന്നെ ഒരു വൺ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ കുറച്ച് കൂടെ സൗകര്യം ആയിരിക്കും എനിക്കെൻറ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വർക്കിന് പോകാൻ ഒക്കെ കുറച്ചും കൂടെ

അ ഓക്കേ പേയിങ് ഗസ്റ്റ് ഓക്കേ ആണ് ഓക്കേ ആണ്

രണ്ട് നില ഞാൻ ഒരാളാണ് താമസിക്കുന്നത് രണ്ട് നില കുറച്ച് കൂടെ സൗകര്യം ആയിരിക്കും എനിക്കെൻ്റെ ഫാമിലിയെയും കൂടെ ഉൾപ്പെടുത്താൻ പറ്റും പിന്നെ ഒരു കാർ പോർച്ച് ഉണ്ടെങ്കിൽ കുറച്ച് കൂടെ സൗകര്യം ആണ് പിന്നെ എനിക്കൊരു കാർ ഉണ്ട് അപ്പം കാർ പോർച്ച് ഉള്ള വീടും കൂടെ ആകുമ്പോൾ കുറച്ച് കൂടെ സൗകര്യം ആയിരിക്കും

അ ഓക്കേ ഓക്കേ പിന്നെ ആ പിന്നെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് അയച്ച് തന്നാൽ ഞാൻ എന്തായാലും അ ഓക്കേ ഓക്കേ